ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിരവധി ഗദ്യങ്ങളും കവിതകളും കഥാസമാഹാരങ്ങളും എഴുതി ഞങ്ങളുടെ കോളേജിൽ പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നു അവർക്കത് സമ്മാനമായി അല്ലെങ്കിൽ അധ്യാപകർക്ക് അല്ലെങ്കിൽ എന്റെ കൂട്ടുകാർക്ക് അത് സമ്മാനമായി നല്കിയിട്ടുണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവരതിന് തക്കതായ നല്ല ഉചിതമായ എന്റെ ഭാഷ ശൈലി വളർത്താനും എന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന രീതിയിലുള്ള മറുപടികൾ അവർ എനിക്ക് നല്കിയിട്ടുണ്ട് ഞാൻ അതു വച്ച് പിന്നീടും കവികളും കലാകാരന്മാരും ചെയ്യുന്നത് പോലെ എന്റെ കഴിവുകൾ വർദ്ധിപ്പിച്ച് പിന്നെയും പിന്നെയും സമ്മാനങ്ങളും കവിതകളുമായി ഞാൻ അവർക്ക് നല്കിയിട്ടുണ്ട്